ഇന്നത്തെക്കാലത്ത് നമുക്ക് പല വീടുകളിലും പല ഗ്രാമപ്രദേശങ്ങളിലും കാണുന്നുണ്ട് വളർത്തുമൃഗങ്ങൾ വളരെയധികം അവര് അതിനെ സംരക്ഷിക്കുകയും അതിലൂടെ ഉപജീവനമാർഗ്ഗം നമ്മള് കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട് അത് ഈ ഗ്രാമപ്രദേശങ്ങള് ആയിട്ടുള്ള വയനാട് അങ്ങനെയുള്ള പ്രദേശങ്ങളിലാണ് ഇടുക്കി വയനാട് അങ്ങനെയുള്ള പ്രദേശങ്ങളിലാണ് നമ്മള് ഇത് കാണപ്പെടുന്നത് കൂടുതലും ഉപയോഗിക്കുന്നതെന്ന് വെച്ചാല് പശു ആട് പോത്ത് പന്നി അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയാണ് ഈ ഗ്രാമപ്രദേശങ്ങളിലെ നാട്ടുകാര് ഉപജീവനമാർഗ്ഗം മുന്നോട്ടുകൊണ്ടുപോകുന്നത് അത് അവർക്ക് അത്രയും വലിയൊരു പ്രശ്നമോ അല്ലെങ്കില് അതിനെക്കുറിച്ച് ആലോചിച്ചൊരു ബുദ്ധിമുട്ടോ അവർക്കിതുവരെ തോന്നിയിട്ടില്ല അവരതിന് മുൻകൈയെടുത്ത് ഇറങ്ങിത്തിരിച്ച് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തുകൊടുക്കുകയും അതില് നിന്ന് വരുമാനം കണ്ടെത്തി അവരുടെ ഉപജീവനമാർഗ്ഗം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മൃഗങ്ങൾ നമുക്ക് എല്ലാ വീടുകളിലും നമ്മള് കാണാറുള്ള വളർത്തുമൃഗങ്ങളെല്ലാം നമ്മള് വീടുകളിലൊക്കെ കാണാറുള്ളത് തന്നെയാണ്